പഴയ തലമുറയിൽ ഉള്ളവർക്ക് ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിനെക്കുറിച്ച് ഒന്നും അറിയില്ല പക്ഷേ യുവതലമുറയാണെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ മാത്രമാണ് ജീവിക്കുന്നത് അവർക്ക് അവരുടെ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഹൈടെക് ആണ് പഴയ തലമുറ ആണെങ്കിൽ വളരെ അധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ജീവിച്ചിരുന്നത് അവരുടെ ആഗ്രഹങ്ങളും വളരെ ഉന്നതങ്ങൾ ആയിരുന്നെങ്കിൽ പോലും അവരുടെ കൃത്യനിഷ്ഠയും ശരിയായ പ്രവർത്തനവും കൊണ്ട് അവർ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നു എന്നാൽ ഇന്നത്തെ തലമുറ ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്നുണ്ടെങ്കിലും അതിനുള്ള അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ കുറവാണ് അവർക്ക് ഹൈടെക്ക് ആഗ്രഹങ്ങളും മോഹങ്ങളും മാത്രമാണ് ഉള്ളതെങ്കിലും അതിലേക്കുള്ള വഴിയിൽ എത്തിച്ചേരാൻ അതിലേക്കുള്ള മാർഗ്ഗങ്ങളിൽ ഉന്നത വിജയം നേടാൻ അവര് വളരെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ ലേസിനസ് കാരണമാണ് അവിടെ എത്തിപ്പെടാത്തത് മാത്രമല്ല ഇവരെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പഴയ തലമുറക്കാരുടെ ചിട്ടയും കൃത്യനിഷ്ഠയും ഇന്നത്തെ യുവതലമുറയ്ക്ക് ഇല്ലാത്തതാണ് അവർ അവരുടെതായ രീതിയിൽ മാത്രമാണ് ജീവിക്കുന്നത്